തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളില് ഒന്നാണ് കള്ളവോട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മളെ പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കുന്ന ടൈമിലൊക്കെ ഒരു പോസ്റ്ററിന്റെ മോളിൽ വേറെ പോസ്റ്റര് ഒട്ടിക്കുക പോസ്റ്റര് കീറി ഇടുക അപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ കള്ളവോട്ട് ജനാധിപത്യത്തിന് വളരെ ഭീഷണിയായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് കള്ളവോട്ട് ചെയ്യുന്നത് അത് കള്ളവോട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ശരിയല്ല പിന്നെ നമ്മൾ ഈ വി വി എം ബഷീറിനെ വളരെയധികം മോശമായിട്ട് പറയുന്നുണ്ട് ഒരു പാര്ട്ടി ജയിച്ച് കഴിഞ്ഞാൽ ഈ വി എം ബഷീറിനെ അതിനെ വ്യക്തമായ ആരോപണങ്ങള് ഉന്നയിക്കാറുണ്ട് എന്നു വെച്ചാൽ ഈ വി എം ബഷീറിനെ ഒക്കെ ഒരു പാര്ട്ടിക്ക് അനുകൂലമായിട്ട് വോട്ടു തരുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ അതൊന്നും ശരിയല്ലാത്ത വളരെ ഇലക്ട്രോണിക്സ് വളരെ സത്യസന്ധമായിട്ട് പ്രവര്ത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളാണ് മെഷീനുകളൊക്കെ അതൊന്നും ആരെപണ ആരെ ആരോപണത്തിലൊന്നും തഴമ്പില്ല പിന്നെ വോട്ടെടുപ്പ് സമയത്ത് നമ്മൾ